ആ ഹലോ

ആ ഇപ്പം കേൾക്കുന്നുണ്ട് ആ ആ അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം മോമ്സ് മിൽക്ക് തന്നെ കൊടുത്താൽ മതി ഒരു എത്ര മാസം ഒരു ഓ ഇപ്പം കൊടുക്കാൻ പറ്റില്ല കാരണവശാൽ ഒരു മൂന്ന് മാസം നാല് മാസത്തിന് അടുത്ത് എന്തായാലും പാൽ തന്നെ കൊടുക്കേണ്ടി വരും ഒരു റേഞ്ചൊക്കെ ആവുമ്പോഴത്തേക്കും പാൽ തന്നെ കൊടുക്കേണ്ടി വരും പിന്നെ ചെറുങ്ങനെ ഒന്ന് എന്താണ് പറയുക അമൃതം പൊടി പോലത്തെ എന്താണ് ആഷ് പോലത്തെ ഫുഡ് കൊടുക്കണം അതായത് ഇപ്പം ആ ആ അങ്ങനത്തെയൊക്കെ ആ അത് തന്നെ നമ്മൾ രാവിലത്തെ എട്ട് ടു ഏഴര ടു ഒമ്പത് ഒമ്പത് മണി ആ ടൈമിൽ നല്ലതാണ് കൊള്ളിക്കുന്നത് കുട്ടിൻ്റെ ശരീരത്തിൽ കുറേ നല്ല നല്ല കാര്യങ്ങളാണ് അത് പറയുമ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ ജനിച്ച കുട്ടിനെ അങ്ങനെ ഒരു വട്ടം കുളിപ്പിക്കുകയുള്ളൂ പിന്നെ ഈ കുറച്ച് മാസങ്ങളൊക്കെ പ്രായമുള്ള കുട്ടിയെ കുളിപ്പിക്കാൻ പറ്റും ഒരു എന്തായാലും മൂന്നര നാല് മണി ഒക്കെ ആവുമ്പത്തേക്ക് കുളിപ്പിക്കണം ഈ രാത്രി ഒന്നും അങ്ങനെ കുളിപ്പിക്കരുത് പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ അമൃതം പൊടി പിന്നെ നമ്മളെ ഓട്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേര് എന്തായിരുന്നു എന്തോ ഓ ശരി പിന്നെ എന്തോ ലാക്റ്റോ ഗ്രോ എന്നു പറഞ്ഞ നമ്മളെ ആ സംഭവമില്ലേ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കണം ഫുഡിൻ്റെ കണ്ടൻറ്റ് ഫിഷിൻ്റെ കണ്ടെൻറ്റ് മീറ്റിൻ്റെ എല്ലാ കണ്ടെൻ്റും വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ അത് ഫുഡിൽ ഡൈജസ്റ്റ് ആണ് അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കാൻ പറ്റും